സെല്ഫ് ഹെല്പ് ഗ്രൂപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കില് ഒരുപാട് സെല്ഫ് ഹെല്പ് ഗ്രൂപ്പുകളുണ്ട് കാരണം ഇന്നത്തെ കാലത്തിപ്പോള് ഈ വാട്സപ്പൊക്കെ ഒരുപാട് ഫേമസ് ആയതോടു കൂടി വാട്സപ്പില് തന്നെ ഒരുപാട് സെല്ഫ് ഹെല്പ് ഗ്രൂപ്പുകളുണ്ട് എന്താ പറയുക നമ്മള്ക്ക് തൊഴിലവസരങ്ങളായാലും കച്ചടവങ്ങളായാലും അങ്ങനെ ഓരോ കാര്യങ്ങളെ റീസെയിലിങ്ങായിട്ടും ഓരോ സംഭങ്ങളതില് വിൽക്കാനും ഓരോ ആൾക്കാരായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കാനും ദൂരെയുള്ള ആൾക്കാരും നമ്മളെ നാട്ടിലുള്ള ആൾക്കാരും തമ്മില് കണക്ടാക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ സെല്ഫ് ഹെല്പ് ഗ്രൂപ്പുകള് സഹായകമാകാറുണ്ട് ബ്ലഡ്ഡ് ആയിട്ടും ബ്ലഡ്ഡ് ഡൊണേഷൻ ആയാലും ജീവിതത്തിലെ കാര്യങ്ങളായാലും ജോലിയുടെ മേഖലയിൽ ആയാലും എല്ലാ കാര്യങ്ങളിലും ഈ സെല്ഫ് ഹെല്പ് ഗ്രൂപ്പുകളില് ഒരുപാട് ഉപകാരമാണ് അതില് പലവിധ ആൾക്കാരുണ്ടാവും പല പ്രായക്കാരുണ്ടാവും അപ്പോള് അവര് എല്ലാവരും ആ ഒരു ചിന്താഗതിയുള്ള ആൾക്കാര് വെറും അങ്ങനെയൊരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാന്നുള്ള അതൊരു നല്ല ഉപകാരമാണ് പിന്നതേപോലെ സ്ത്രീകൾക്ക് തൊഴിലിന് വേണ്ടി ഒരുപാടവസരങ്ങളുണ്ട് ഇപ്പോള് ഇന്നത്തെ കാലത്ത് ചിലപ്പോള് പുരുഷന്മാരെക്കാളും സ്ത്രീകളായിരിക്കും നല്ല വേതനത്തോടുകൂടി ജോലി ചെയ്യുന്നത് ഇപ്പോള് ഓൺലൈൻ യുഗം ഇതൊക്കെ ആയതോടുകൂടി ഇപ്പോള് ഒരു എനിക്കുതന്നെ അറിയുന്നൊരു ഒരു വിദേശത്തിൻറ്റൊരു സർവറുണ്ട് ഒരു മീഡിയ ഒരു പ്ലാറ്റ്ഫോമുണ്ട് അതിലൊക്കെ ഒരുപാട് സ്ത്രീകള് ഏൺ ചെയ്യുന്നതും അതില് സ്ക്രീൻ ഷോട്ടുകളൊക്കെ വരാറുണ്ട് അങ്ങനെ സ്ത്രീകൾക്ക് കാര്യങ്ങള് വീട്ടില് അവര് അച്ചാറുകള് ഉണ്ടാക്കുക അതേപോലെ ക്രാഫ്റ്റിങ്ങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കലും അത് അവർക്ക് പുറമേ ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ ഈ ഓൺലൈൻ ഇപ്പത്തൊരു അവസരങ്ങള് സെല്ഫ് ഗ്രൂപ്പുകളൊക്കെ ആയാലും അതെല്ലാം അവർക്ക് ഉപകാരമാണ് പിന്നേ ആ ജോലി സേർച്ച് ചെയ്യാനും എല്ലാം ഫീമേയിലായിട്ടും ഒരുപാട് ജോലി സാധ്യതകളൊക്കെ വരുന്നത് അതൊക്കെ അവരിലേക്കെത്താനൊക്കെയിപ്പോള് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകള് ഒരുപാട് ഉപകാരമാണ്